ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫെമിനിസത്തിൽ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈക്വാളിറ്റി ആണ് ബോയ്സിനും ഗേൾസിനും ഒരേ ഈക്വലിറ്റി ഇപ്പോൾ തന്നെ ഒരുപാട് ഈ ഒരു സൊസൈറ്റി തന്നെ ഒരുപാട് പേർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീഡത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഓരോ വാക്കുകൾ കാരണം ഒരിക്കലും ഒരാൾക്കും കേട്ട് നിൽക്കാൻ പറ്റാത്ത ഒക്കെ രീതിയിലുള്ള സംസാരങ്ങൾ സൊസൈറ്റിയിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഈ ഫ്രീഡത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഗേൾസും ബോയ്സ് ഗേൾസ് എന്ന് ഗേൾസ് ബോയ്സ് എന്ന വേർതിരിവ് കാണിച്ച് കൊണ്ട് ഗേൾസിന് ഗേൾസ് ഇപ്പോൾ അവർക്കും ഒരേ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നടത്താൻ പോലും പറ്റാതെ ഒരു മൂലക്ക് ഒതുങ്ങി കൂടിയിരിക്കുന്ന ഗേൾസ് വരെ ഉണ്ടാവും പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇതാണ് അവർ ഇപ്പോഴും മറ്റുള്ള പെൺകുട്ടികളുടെ ഒക്കെ അടുത്ത് വളർന്ന് വരുമ്പോഴും പറയുന്നത് അത് ചെയ്യാം ഗേൾസ് പെൺകുട്ടികൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സൊസൈറ്റിയിൽ കണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇത് അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം അതുപോലെ തന്നെ ഗേൾസെന്നും ബോയ്സെന്നും വേർതിരിവ് ഇല്ലാതെ ഇപ്പം ഗേൾസിന് കൊടുക്കേണ്ട ഫ്രീഡം അതുപോലെ റെസ്പെറ്റ് അത് വേറെ അതും അവർക്ക് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പം ബോയ്സിന് വേറെ ഗേൾസ് വേറെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത് പോലെ പിന്നെ പറയാനാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ നടക്കേണ്ടത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഇപ്പോൾ നമ്മളുടെ ചോയ്സ് ഇപ്പം നമുക്ക് നല്ല ഒരു ഡ്രസ്സ് ഇടണം നല്ല ഒരു ട്രാവല് പോകണം അതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ് ഇപ്പം നമ്മൾ എന്ത് ഡ്രസ്സിടണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് പല സൊസൈറ്റിയിലും ഇപ്പം ഗേൾസ് ഒരു സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സിട്ടാൽ അല്ലെങ്കിൽ ഒരു ജീൻസോ ടോപ്പോ ഇട്ടാലോ അതിനും പറയുന്ന ആൾക്കാർ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അവരെ ഓരോ ഇഷ്ടം പിന്നെ നമ്മൾ ഇടുന്ന ഡ്രെസ്സ് നമുക്ക് കംഫോർട്ടാണ് നമ്മൾ സാറ്റിസ്ഫെയ ആണെങ്കിൽ നമുക്ക് അത് ഇടണേലൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മൽ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളുടേതായ രീതിയിൽ നടക്കാൻ നോക്കാം പിന്നെ ആ ഒരു നല്ല രീതിക്ക് നടക്കുക നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതും ചുറ്റുപാടുകൾ എല്ലാം അനുസരിച്ച് നമുക്കറിയാം അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നല്ല രീതിക്ക് പോവുക അതാണ് മെയ്നായിട്ട് എനിക്കും ഇതിൽ പറയാനുള്ള കാര്യം അപ്പോൾ ഇക്വലിറ്റി എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം ഫെമിനിസത്തിൽ